സോണി എന്ന കമ്പനി സെപ്റ്റംബർ ഇരുപത് വരെ നടത്തിയ ഒരു ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രഫി മത്സരത്തിൽ പങ്കെടുക്കുവാൻ പറ്റി ഇതിനായിട്ടുള്ള റെജിസ്ട്രേഷൻ ആഗസ്റ്റിൽ തുറന്നിരുന്നു മൂന്ന് വിഭാഗങ്ങളിലാണ് മത്സരം ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ മോണുമെൻറ്റ്സ് അതുപോലെ വന്യജീവി ഫോട്ടോഗ്രഫി ഒപ്പം മനുഷ്യരുടെ വികാരങ്ങൾ എന്ന് മൂന്ന് വിഷയങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് പിന്നെ ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ ഇതിനായിട്ട് മത്സരിച്ചിരുന്നു ഒരുപാട് ഏറെ ഫോട്ടോ കാരങ്ങളും ലഭിച്ചതായിട്ട് അവര് അറിയിച്ചിരുന്നു ഇതിനുള്ള മത്സരത്തിനുള്ള സമ്മാനമായി അവർ പ്രഖ്യാപിച്ചത് സോണിയുടെ തന്നെ ഏറ്റവും പുതുതായി ഇറങ്ങിയ ക്യാമറയായിരുന്നു സോണി ഇ വി ഹൺഡ്രഡ് എന്ന മോഡലിലുള്ള ക്യാമറ ഏകദേശം അറുപതിനായിരം രൂപയോളം വില വരുന്നതായിരുന്നു ഫലങ്ങളുടെ ഫോട്ടോകൾ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി എന്നു പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നായിരുന്നു ഒക്ടോബർ ഒന്നു മുതലാണ് മൂല്യനിർണ്ണയം തുടങ്ങുന്നത് ഒക്ടോബർ അഞ്ചോടു കൂടി ഇതുതന്നെ ഒരു റിസൽട്ട് പുറത്തു വരുന്നതാണ് ഇതിന് ചെയ്യാനായിട്ട് ചെയ്തത് മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകൾ പകർത്തുക എന്നതാണ് ഇതിനായി ഡിജിറ്റൽ ക്യാമറയാണ് ഞാൻ ഉപയോഗിച്ചത് നിക്കോണിൻ്റെ ഡി മൂവായിരത്തി ഇരുന്നൂറ് എന്ന മോഡൽ ക്യാമറ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചു മോണുമെൻറ്റ്സ് എന്നതിനായി ചെയ്തത് ഒരു അമ്പലത്തിന്റെ ചിത്രം പകർത്തുകയും അത് നല്കുകയാണ് ചെയ്തത് വന്യജീവി ഫോട്ടോഗ്രഫി എന്ന വിഷയത്തിനായി ഞാൻ ചിത്രീകരിച്ചത് ഒരു ചിത്രശലഭത്തെ ആയിരുന്നു തൊട്ടടുത്തുള്ള സൈലൻറ്റ് വാലി റിസർവ് ഏരിയയിൽ നിന്നുള്ള ഒരു ചിത്രശലഭത്തിൻ്റെ മനോഹരമായൊരു ചിത്രം പകർത്തുകയും അവ നൽകുകയും ചെയ്തു ആൾക്കാരുടെ വികാരങ്ങൾ എന്നതിനായി ഞാൻ പകർത്തിയത് ഒരു പൂരത്തിൻ്റെ ദൃശ്യമായിരുന്നു പൂരത്തിനായിട്ടുള്ള ആൾക്കാരുടെ ആഹ്ളാദവും ആരവങ്ങളും അടങ്ങുന്നൊരു ചിത്രം ഇതിനെ പകർത്തുകയും അത് സോണിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ റിസൾട്ടിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്